ഞങ്ങളുടെ നാട്ടിലെ സിനിമ തീയേറ്റർ എന്ന് പറയുമ്പോൾ അഭിലാഷ് ആനന്ദ് അനുപമ ഫോക്കസ് ആർ ഡി സിനിമാസ് അഞ്ചാനീ സിനിമാസ് ഏറ്റവും കൂടുതൽ പോകാറുള്ളത് അഞ്ചാനീ സിനിമാസിലാണ് കാരണം നമുക്ക് സീറ്റിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം നമുക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം അവർ അവിടെ തന്നെ എത്തിച്ചു തരും നമ്മൾ ഓർഡർ ചെയ്യുന്നത് ബാക്കിയെല്ലായിടത്തും ആ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല കാരണം അത് സർവീസ് ഉണ്ടോ എന്നും നമുക്ക് അറിയത്തില്ല സീറ്റിങ് ഒക്കെ പക്കയാണ് അതുപോലെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല തീയേറ്ററാണ് നല്ല റെവ്യൂവാണ് എല്ലാവരും പറയുന്നത് നല്ല അതുകൊണ്ട് ഫാമിലിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പോകാറുള്ളത് ഫ്രണ്ട്സായിട്ടാണ് ഫ്രണ്ട്സായിട്ട് പല ടൈമിൽ പോകാറുണ്ട് ഇങ്ങനെ ഒന്നുമില്ല ഏറ്റവും കൂടുതൽ പോകാറുള്ളത് നൈറ്റ് ആ പോകാർ എട്ട് മണിക്ക് ഷോ അല്ലെങ്കിൽ എട്ടുമണി അല്ലെങ്കിൽ ഒൻപത് മണിക്ക് ഷോ തുടങ്ങും പിന്നെ ആ നാലുമണിക്കത്തെ ഷോയിക്ക് കാണാൻ പോയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ഒൻപത് മണി ആ നൈറ്റ് ഷോയ്ക്ക് ആണ് പന്ത്രണ്ട് മണിക്കാണ് ഏറ്റവും കുറവ് പോയിട്ടുള്ളത് ഒന്നോ രണ്ടോ ഷോയ്ക്ക് പോയിട്ടുള്ളു അധികം താമസിക്കുവാണേൽ കൂട്ടുകാരൊക്കെ എവിടേലും പോകുവാണേൽ മാത്രമേ ആ ഷോയ്ക്ക് പോകാറുള്ളൂ ഫാമിലിയായിട്ട് പോകാറുണ്ട് ഫാമിലിയായിട്ടാണ് ആ തീയേറ്ററിലാണ് ഏറ്റവും കൂടുതൽ പോകാറ് പിന്നെ കസിൻസ് ഒക്കെ വരുമ്പോഴ്ത്തെനും ഒരു സിനിമ രണ്ടു പ്രാവശ്യമൊക്കെ അവിടെ പോയിരുന്നു ഞാൻ കാണാറൊക്കെയുണ്ട് പിന്നെ കൂട്ടുകാരുടെ ഫാമിലി ആയിട്ട് കാണാറുണ്ട് പോകാറുണ്ട് അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പിലാണ് ഉണ്ടാകുന്നത് പിന്നെ പിളേളർക്ക് ഗെയിം കളിക്കാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ ആ തീയേറ്ററിൽ തന്നെയുണ്ട് ഫൺസ്യുറ എന്ന് പറയുന്ന സംഭവങ്ങൾ അഞ്ചാനീ സിനിമാസിലുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രീഫെർ ചെയ്യുന്നു എല്ലാം പോകുന്നു ആ തീയേറ്ററിൽ തന്നെയാണ്